പലപ്പഴും നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ പല തവണയും നമ്മള് പല സ്ഥലങ്ങളിലും കേരളത്തില് പല സ്ഥലങ്ങളിലും നമ്മള് സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് റൈഡറുമാരെന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള റൈഡറുമാരെന്ന് വച്ച് കഴിഞ്ഞാൽ യാത്രയ്ക്ക് പ്ലാൻ ചെയ്യണന്ന് വച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കൂട്ടുള്ളവരെന്ന് വച്ച് കഴിഞ്ഞാൽ വിദേശങ്ങളിൽ ജോലി ചെയ്തിട്ട് വരുന്ന വ്യക്തികളാണ് നമ്മൾ നാട്ടിൽ വരുന്ന ഒഴിവ് വേളകളിൽ നമ്മുടെ നാട്ടിലുള്ള നാട്ട് ജോലികളിൽ ശനീം ഞായറും അവധിയുള്ള സുഹൃത്തുക്കള് അവരുടെ സമയക്രമം അനുസരിച്ച് നമ്മൾ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പലപ്പഴും ഒരു നമ്മുടെ ഗ്രൂപ്പുകൾ നമ്മുടെ സായാഹ്നങ്ങളിൽ നമ്മളെ ഒത്തു ചേരലുകളിൽ നമ്മൾ ചില ചില ലൊക്കേഷനുകൾ പ്ലാൻ ചെയ്ത് നമ്മളത് നാട്ടിൽ വരുമ്പോഴൊക്കെ ബൈക്കുകളിൽ ഏതെങ്കിലുവൊക്കെ സ്ഥലങ്ങളിലേക്ക് ട്രിപ്പുകൾ പോകാറുണ്ട് ഈ അടുത്ത സമത്ത് നമ്മൾ കാന്തല്ലൂർ ഇന്ത്യ കേരളത്തിൻ്റെ അതിർത്തിപ്രദേശമായ തമിഴ് നാടിൻ്റെ ഭാഗമായ കാന്തല്ലൂരിൽ നമ്മൾ സുഹുത്തുക്കളുമൊത്ത് നമ്മൾ ബൈക്ക് യാത്ര നടത്തിയിട്ടുണ്ട് നമുക്ക് തിരക്കേറിയ സമയങ്ങളെന്ന് വച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ പല സമയങ്ങളും ശനിയും ഞായറുകളും അവർക്ക് അവധികളായിരിക്കും ആ സമയങ്ങളിലെല്ലാം അവർ നമ്മുടെ കൂടെ വരാൻ തയ്യാറാവാറുണ്ട്